തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്താൻ വിനോദസഞ്ചാരം ഏറെയും സഹായിക്കുന്നുണ്ട് പ്രധാനമായും പാവപ്പെട്ടവർക്കാണ് ഏറ്റവും പ്രാധാന്യം അതായത് ഈ ഗവി പമ്പ അതുപോലെ ഉള്ള കുട്ടവഞ്ചി സവാരി അതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വീട്ടിലൂണ് അതായത് അവ അവിടെ ഹോട്ടലുകളൊന്നും ധാരാളമായി ഇല്ലാത്ത സ്ഥലങ്ങൾ ആയതുകൊണ്ട് ഓരോ വീടുകളിലും ധാരാളം കുറച്ചുകൂടെ ചോറ് ഏറെ വീ വീട്ടിൽ ഒരു പന്തൽ ഒരുക്കി നാടൻ രീതിയിൽ ഇലയിട്ട് വിളമ്പി നല്ല ക് കൂട്ടാനും കറിയും പായസം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ധാരാളമായി പ്രത്യേകത പ്രത്യേക രീതിയിൽ നല്ല ഒരു ഇതായിട്ട് ഉണ്ടാക്കി വീട്ടിലൂണ് എന്നൊരു ബോർഡ് വെച്ച് അങ്ങനെ ചെയ്താൽ അവർക്കൊരു പൈസയ്ക്കൊരു നല്ലൊരു മാർഗമായിരിക്കും ധാരാളമായി അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് ഏറെ പ്രയോജനപ്പെടുന്നൊരു രീതിയാണത് അതുപോലെ ഉച്ചയ്ക്ക് ഊണ് പോലെ തന്നെ രാവിലെ കാപ്പി വൈകിട്ട് ചായ സൽക്കാരം വീട്ടിൽ ഉണ്ടാക്കുന്ന നാടൻ കടികൾ അങ്ങനെ എന്തെങ്കിലുമൊ ക്കെ കൊടുത്ത് വിനോദ സഞ്ചാരികളെ നല്ല രീതിയിൽ വിഭവ സമൃദ്ധമായ എല്ലാം കൊടു ഭക്ഷണം കൊടുത്ത് കൊടുക്കുന്നതിലൂടെ അവർ ഒരു ഒരു ആൾക്കാർ വന്ന് ഇഷ് കണ്ട് കഴിച്ച് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ വേറെ ആൾക്കാരോടും പറഞ്ഞിത് നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ എത്തുകയും അതിലൂടെ അവർക്കൊരു പൈസയ്ക്കൊരു മാർഗം ഉണ്ടാവുകയും നല്ലൊരു വരുമാന രീതി എന്നതുപോലെ ആവുകയും ചെയ്യുന്നത് വളരെ ഒരു മെച്ചപ്പെട്ട കാര്യമാണ് അതെല്ലാം വളരെ നല്ല അനുഭവങ്ങളാണ് അവർക്ക് നൽകുന്നത് ന മോശം അനുഭവം എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ പലതരം തട്ടിപ്പ് പല ഇടത്ത് നടക്കാറുണ്ട് അതായത് അവരുടെ സ്വർണ്ണം ഫോൺ അതുപോലെ ഉള്ള സാധനങ്ങൾ കളിപ്പീര് രീതിയിലൂടെ ഞങ്ങൾ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോവുമ്പോൾ കള്ളത്തരത്തിലൂടെ അത് തട്ടിയെടുക്കുകയും ആൾക്കാരെ ഓരോ രീതിയിൽ കബളിപ്പിക്കാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായ ഒരു അനുഭവമാണ് അത് ധാരാളമായി കണ്ട് വരുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് കുഴപ്പം ഉള്ള രീതിയിൽ അധികമായി കാണാറില്ല